ഹലോ ഇത് സി ടി സ്കാൻ എടുക്കുന്നായിരുന്നു എവിടെയായിരുന്നു ആ ഓക്കെ എന്തായിരുന്നു പ്രശ്നം

ആ തലവേദന ആ ഓക്കെ അത് എപ്പോഴായിരുന്നു സംഭവം ആ അപ്പോൾ എന്താ കാണിക്കാതിരുന്നത്

ആ അപ്പോ ഹെഡ് ഇഞ്ചുറി അല്ലേ പുറത്തങ്ങനെ കാണാനൊന്നുമില്ലലോ ആ ഓക്കെ വൊമിറ്റിംഗ് അങ്ങനെയെന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ഓക്കെ ആ അപ്പോൾ നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുകയുള്ളൂ

ഇപ്പോൾ ബുക്ക് ചെയ്തതാണെങ്കിൽ നാളെ ഒരു പത്ത് മണി ആവുമ്പോഴത്തേക്കും വന്നാൽ മതി ഇല്ല ബുക്ക് ചെയ്യണം പ്രീബുക്ക് ചെയ്യണം അതിപ്പോ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രടാണ് തലയ്ക്ക് സ്സ്കാനിങ്ങിന് വരുന്നത്

അല്ലെങ്കിൽ ഗവണ്മെന്റിൽ ചെയ്തിട്ട് ഗവണ്മെന്റിലെ ഡോക്ടറെ കാണിച്ചാലും മതി ഇത് പ്രൈവറ്റ് ക്ലിനിക്ക് ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് കൂടാതെ തലയും കൂടെയല്ലേ ഗവണ്മെന്റില് അവര് തലേന്റെ സ്കാനിങ്ങ് എടുക്കുമെങ്കിൽ അധികം എമൌണ്ട് ആവില്ല പിന്നെ പുറത്തേക്ക് എഴുതിത്തരുന്നതെങ്കിൽ ഇത് പോലത്തെ ലാബിൽ പോയി ചെയ്യേണ്ടിവരും ആ ഇവിടെയാവുമ്പോ പിന്നെ ഡോക്ടർ ഓ നാളെ രാവിലെ ബുക്ക് ചെയ്താൽ ഒരു നാല് മണിയൊക്കെയാവുമ്പോഴേക്കും ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം ഒരു നാല് മണിയാവുമ്പോഴേക്കൊക്കെ ചെയ്യാൻ പറ്റും

ആ ഓക്കെ ആ പറയാം എന്നാൽ ശരി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു ലൈനിൽ തുടരുക അബ് ജിസ് വ്യക്തിസെ ബാത് കർ രഹേഹെ ഉൻഹോനെ ആപ് കെ കോൾ കോ ഹോൾഡ് പർ രഖാ